ഇവിടെ ഇപ്പം ആരുടെയെങ്കിലും കൈയോ കാലോ ഒടിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയാൽ ആദ്യം കൊണ്ടു പോകുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് അത് ഇവിടെ കോഴഞ്ചേരിയിലാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ ചെന്നിട്ട് ആദ്യം വേണ്ട ഫസ്റ്റ് എയിഡ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാൻ എങ്ങനെ ആണെന്നു വച്ചാൽ കാണിക്കും എക്സറേ എടുക്കേണ്ട കാര്യം ആണെങ്കിൽ എക്സ്റേ എടുത്ത് അതിന് ശേഷം കൂടുതൽ ഒടിവ് ഉള്ളതെങ്കിൽ അത് പ്ലാസ്റ്റർ ഇട്ട് വയ്ക്കുകയായിരിക്കും ചെയ്യുന്നത് പിന്നെ ചികിത്സയെന്ന് പറയുമ്പം അതിന് പ്ലാസ്റ്റർ ഇടുകയല്ലാതെ വേറെ വഴി ഇല്ലല്ലോ അത് ശരിയായി വരാൻ എടുക്കുന്ന സമയം പിന്നെ മരുന്നുകൾ കാണാൻ സാധ്യത കുറവാണ് ഒടിവൊക്കെ ആണെങ്കിൽ അപ്പോൾ റെസ്റ്റ് എടുക്കുക വീട്ടിൽ ഇരുന്ന് വിശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ആകെയുള്ള ഒരു വഴി